മലയാള ഭാഷ നമ്മൾ മറ്റു സ്ഥലങ്ങളിൽ പോവുമ്പം മലയാളികളാണ് എന്നു പറയുമ്പോൾ തന്നെ ഒരു ബഹുമാനം ബാക്കിയുള്ളയിടത്തു നിന്ന് കിട്ടുന്നതുപോലെയുണ്ടെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് പിന്നെ മറ്റു ഭാഷകൾ പഠിക്കുന്നതിനേക്കാട്ടും കുറച്ചു ബുദ്ധിമുട്ടേറിയ ഭാഷയാണ് മലയാളം എനിയിപ്പം എഴുതാനാണെങ്കിലും ഒരുപാട് അക്ഷരങ്ങൾ മലയാളത്തിലുണ്ട് പലരീതിയിലും ഒരുവാക്കിനെ തന്നെ പലരീതിയിലും എഴുതാൻ പറ്റുമെങ്കിലും അതിൻ്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി എഴുതണമെങ്കിൽ മലയാളം നല്ലോണം അറിയുന്ന മലയാള അക്ഷരങ്ങൾ നല്ലോണം അറിയുന്നവർക്ക് മാത്രമേ മലയാള ഭാഷകൾ എഴുതാൻ പറ്റുകയുള്ളൂ പിന്നെ മലയാള ഭാഷ മറ്റു ഭാഷകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതായിട്ട് ഒന്നുമില്ല പക്ഷേ പഠിക്കാനും പറയാനും കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് മലയാള ഭാഷ പലപ്പോഴും മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് വന്നവർ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്